നമ്മുടെ തോട്ടത്തിലെന്ന് പറയുമ്പം കുറെ പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതൊക്കേന്ന് പറയുമ്പം ചിലതെന്ന് പറയുമ്പം നമ്മള് കൃഷി ചെയ്യുന്ന കുറെ സാധനങ്ങളുണ്ടാവില്ലെ പൂക്കള് അതെന്ന് പറയുമ്പോൾ നമ്മളെന്താക്കും ഇങ്ങനെ സീസണാകുമ്പോൾ നമ്മളത് പറിച്ച് ഈ അത്തം ഇടാൻ അങ്ങനെ ഒക്കെ കൊടുക്കും അല്ലാത്തതെന്ന് പറയുമ്പം അവിടെ നിന്ന് ചീഞ്ഞ് പോവും ചിലത് ഇങ്ങനെ വിത്താക്കി നമ്മളെടുക്കും ആരേലുമൊക്കെ വിത്ത് ചോദിക്കുമ്പോൾ അങ്ങനെ കൊടുക്കും ചെടിയൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ കൊടുക്കും പഴങ്ങളെന്ന് പറയുമ്പം ഇപ്പം കുറെയൊക്കെ നമ്മള് തിന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ കുറെ നമ്മുടെ കസിൻസിന് കൊടുക്കും അങ്ങനെ ഉള്ള ഒക്കെ ചെയ്യും പിന്നേ ബാക്കി വരുന്നതെന്ന് പറയുമ്പം കുറെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് എന്താക്കും അത് ടൗണിൽ കൊണ്ടുപോയിട്ട് ഏതേലും കടേക്കൊണ്ടോയിട്ട് വിക്കും അങ്ങനെ ഉള്ള ഒക്കെ ചെയ്യും പിന്നെ കുറെ നയ്യ് ഈ നല്ല നല്ല പഴങ്ങളൊക്കെ ഉണ്ടാവൂല്ലെ അത് നമ്മലിങ്ങനെ വീട്ടിലെടുത്ത് വെച്ച് മാങ്ങ മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് നമ്മള് പറിച്ച് വെച്ച് കൊറച്ചീച്ചെ കൊറച്ചീച്ചെ പഴുപ്പിച്ച് ഒന്നല്ലെങ്കിൽ ജ്യൂസടിക്കും അങ്ങൻത്താക്കും അല്ലെങ്കിൽ വീട്ടിൻ്റെ അപ്പുറത്തുള്ളവര് ഇപ്പറത്തേക്കൊള്ള ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുവൊക്കെ ചെയ്യും എന്നിട്ടും ബാക്കി ഉണ്ടെങ്കിൽ നമ്മള് ഒന്നൂല്ലെ കടേലൊക്കെ കൊണ്ടുപോയി വിൽക്കും ഇല്ലെങ്കിൽ നമ്മളുതന്നെ ഇരുന്ന് തിന്നും അതൊക്കെയാണ്